എനിക്ക് ലോകത്ത് എവിടെയാണെങ്കിലും പോകാനുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെവിടെയാണ് പോവുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗൾഫാണ് എനിക്ക് ഗൾഫ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ജോലിക്ക് പോകണം ഗൾഫിലൊരു ജോലിക്ക് പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹം ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗൾഫിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരും ഇങ്ങനെ നമ്മൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരെ ഹസ്ബൻ്റ് കാര്യങ്ങളൊക്കെ അവിടെയുള്ളതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തിടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് അയ്യോ ദൈവമേ ഞാൻ എനിക്കൊന്നു പോകാൻ പറ്റണേ എനിക്കൊന്ന് അതായത് വിസിറ്റിംഗ് വിസയ്ക്കോ അപ്പോൾ എന്നോട് ഹസ്ബൻ്റ് പറയാണ് നമുക്കൊരു ഒന്നര മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് പോകാം നമുക്ക് കുറച്ച് കഴിയട്ടേന്നൊക്കെ പറയും ഇപ്പോൾ ചെറിയ കൊച്ചുണ്ടപ്പോൾ കൊച്ചിനെയൊന്നും കൊണ്ട് കൊണ്ടു പോകാൻ പറ്റില്ല അപ്പോഴെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബുർജ് ഖലീഫ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണണം ഞാൻ അവിടെ നിന്ന് ഫുഡ്ഡ് കഴിക്കണം നല്ലൊരു ഹോട്ടലിൽ താമസിക്കണം പിന്നെ പിന്നെയെന്ന് മെയ്നായിട്ട് വിമാനത്തിൽ കയറണം ഞാൻ ഇന്നുവരെ ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊന്നു ഗൾഫിൽപ്പോയാൽ മതി എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ പോകണമെന്നു മാത്രമേ എനിക്കാഗ്രഹമുള്ളു ഏറ്റവും വലിയ ആഗ്രഹം